എന്നെ യാത്രയില് ഓട്ടോ കയറി അവിടെ റെയിൽവേ സ്റ്റേഷനീന്ന് വീടുവരെ കൊണ്ടെത്തിച്ചതിന് അങ്ങേക്കു ഞാൻ വളരെയധികം നന്ദി പറയുന്നു സുരക്ഷിതമായി സേഫായി നല്ല രീതിയില് ഡ്രൈവിങൊക്കെ ചെയ്ത് എന്നെ ഭംഗിയായി വൃത്തിയായി ഇവിടെ എത്തിച്ചതിന് താങ്കൾക്ക് വളരെയേറെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാന് ഇറങ്ങുകയാണ് ഞാൻ പൈസ തരുന്നു അത് ഇച്ചിരി കുടുതലാണെന്നറിയാം എങ്കിലും താങ്കള് തന്ന സേവനത്തിന് നന്ദി